ആ എസ് ബി കോളേജ് ലൈബ്രറി അല്ലേ ആ ഞാനിവിടെ പഠിക്കുന്ന എം എ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് നമ്മുടെ ഒരു പേര് സീമ ആ എനിക്ക് നമ്മുടെ ലൈബ്രറിയിലെ ടു ആരാച്ചാർ എന്നും പറഞ്ഞൊരു ബുക്കിനെപ്പറ്റി അറിയാൻ വേണ്ടി ആയിരുന്നു ഉണ്ടോ നമുക്ക് ചെമ്മീൻ ടു ആരാച്ചാർ ഓക്കെ ഓക്കെ ചെമ്മീൻ ടു ആരാച്ചാർ എന്നും പറഞ്ഞുള്ള ബുക്കായിരുന്നെ എനിക്കതൊന്ന് റഫർ ചെയ്യാനായിരുന്നു ആ മലയാളം മലയാളം മലയാളം ഞാൻ മലയാളം എം എയാണ് ആതെ ആ മ് ഓ ഓ മിസ്സെ എനിക്കതൊന്ന് ഓ അത് ശരി മിസ്സേ എനിക്ക് അതൊന്ന് കിട്ടിയാൽ അത്യാവശ്യായിരുന്നു എനിക്കതൊന്ന് റഫർ ചെയ്ത് അതിൻ്റെ നോട്സ് ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ മിസ് ഞാനത് അടക്കാം അതിന് വേണ്ടീട്ട് ഞാൻ ഇപ്പോൾ വന്നാൽ മിസ് കാണുമോ ലൈബ്രറിയിൽ ഓ ആ ആ ഓ ശരി ശരി മിസ്സേ ഞാൻ അപ്പോൾ ആ കുട്ടിയെ ഞാൻ വിളിക്കണോ അതോ മിസ്സ് സംസാരിച്ച് എനിക്ക് കലക്ട് ചെയ്ത് തരുമോ ഓ ആ ഓക്കെ ഓക്കെ ഓക്കെ മിസ്സെ ഓ ശരി ആ ആ എനിക്ക് ഈ ഒരു കാര്യം ഞങ്ങളുടെ അസൈൻമെൻറ്റായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടീട്ട് ഈ ബുക്ക് റഫർ ചെയ്തിട്ട് എനിക്ക് വേണം ബുക്കുകൾ അപ്പോൾ ഇതൊന്ന് ചെയ്ത് അതിൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ മറ്റു ബുക്കെടുക്കാം അപ്പം അതിനു വേണ്ടീട്ട് എനിക്കത്യാവശ്യാണ് മിസ്സേ ഇത് ഓക്കെ ഓക്കെ ആ ആ ഓക്കെ മിസ് അപ്പോൾ എന്നെ വിളി ഇല്ലയില്ല ഓക്കെ ഓക്കെ ഓക്കെ മിസ്സേ ഞാൻ നാളെ വരുമ്പോഴത്തേക്കും ഈ വിവരം കൊച്ചിനെ ആ കുട്ടിയെ വിളിച്ചിട്ട് അതിൻ്റെ വിവരവും അപ്പോൾ ഞാൻ വരുമ്പോൾ ഈ ഇതെല്ലാം കൂടെ കൊണ്ട് വന്നേക്കാം ക്യാഷും കൂടെ കൊണ്ട് വരാം ഓക്കെ ഓക്കെ ഓക്കെ നാളെ പത്ത് മണിക്ക് ആ ഓക്കെ ഓക്കെ മിസ്സെ ഞാൻ വന്നേക്കാം ഓക്കെ മിസ്സെ താങ്ക് യൂ താങ്ക് യൂ മിസ്സെ ഓക്കെ